കുട്ടിക്കാലത്ത് ഞങ്ങൾ കളിച്ചിരുന്ന കളികളെന്തക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കള്ളനും പോലീസും കഞ്ഞീം കറിയും ഒക്കെ ആയിരുന്നു അപ്പം അതിനകത്ത് എനിക്കേറ്റോം എടുത്തു പറയാനുള്ളത് കള്ളനും പോലീസും എന്ന കളിയെപ്പറ്റിയാണ് സാധാരണ രീതീയിൽ നമുക്ക് തിങ്കളാഴ്ച തൊട്ട് വെള്ളിയാഴ്ച വരെ സ്കൂൾല് ക്ലാസൊണ്ടായിരിക്കണം അപ്പം ഒരു ക്ലാസൊള്ള സമയത്ത് നമ്മൾ സ്കൂൾളായിരിക്കും അപ്പം പാ പാഠ്യപദ്ധതി ഒക്കെ അതിൻ്റെക്കെ തിരക്കിലക്കെ ആയിരിക്കണം നമുക്ക് സ്കൂൾലൊന്നും വലുതായിട്ടൊന്നും കളിക്കാൻ വേണ്ടീട്ടൊ കൂട്ടുകാരുമായിട്ട് ഇടപഴകാൻ വേണ്ടീട്ടൊ ഒരവസരവൊന്നും നമുക്ക് കിട്ടിയിരുന്നില്ല പഠിച്ചതിന്ഗ്ലിഷ് മീഡ്യം സ്കൂൾലായിരുന്നു പക്ഷേ താമസിച്ചത് ഗ്രാമത്തേത് നാട്ട് പ്രദേശത്ത് തന്നെയായിരുന്നു അപ്പം ശനിയാഴ്ചകൾ വെള്ളിയാഴ്ച സ്കൂള് വിട്ട് വരുമ്പത്തന്നെ ശനിയും ഞായറും സ്വപ്നം കണ്ടാണ് വരുന്നത് സ്കൂൾ ബെസ്സിലിരുന്നോണ്ട് അപ്പം ശനിയാഴ്ചകളിൽ നമ്മൾ കളിച്ച കളികൾ തന്നെയായിരുന്നു കള്ളനും പോലീസും കഞ്ഞീം കറികളും എന്ന് പറയുന്നത് കഞ്ഞീം കറീം എന്ന് പറയുന്നത് കള്ളനും പോലീസും കളിക്കുമ്പോൾ നമ്മുടെയൊക്കെ ഏറ്റോം വലിയ സ്വപ്നമായിരുന്നു പോലീസാവാന്നുള്ള കാര്യം കള്ളന്മാരായിരിക്കാം രണ്ടോ മൂന്നോ പേർ അതിന് നമ്മൾ ഒന്നോ രണ്ടോ പേർ പോലീസായിരിക്കും നമ്മളെന്ത് ചെയ്യണം ഈ കള്ളന്മാരെ പിടിക്കാൻ വേണ്ടിട്ട് കൂടെ ഓടണം ഓടിക്കളി തന്നെയായിരുന്നു കള്ളന്മാർ കള്ളന്മാരായിട്ട് അഭിനയിക്കുന്ന കുട്ടികൾ മരത്തിന് മുകളിലും അതു പോലെ തന്നെ വീടിൻറെ പുറകുവശത്തെക്കെ ഒളിച്ചിരിക്കുകയൊക്കെ ചെയ്യും നമ്മൾ പോയി കള്ളന്മാരെ പിടിച്ച് കൊണ്ട് ഒരു പ്രത്യേക സ്ഥലമുണ്ട് അതാണ് ലോക്കപ്പന്ന് പറയുന്നത് അവടെക്കൊണ്ടിട്ടിട്ട് ആരും വന്ന് പാസ്സ് കൊടുത്താൽ മാത്രമേ ആ ലോക്കപ്പിക്കെടക്കുന്ന വേറൊരു കള്ളൻ വന്ന് പാസ്സ് കൊടുത്താൽ മാത്രമേ ആ ലോക്കപ്പിക്കെടക്കുന്ന ആൾക്ക് ഓടി രക്ഷപ്പെടാൻ മേണ്ടിക്കഴിയു അപ്പം ആരും പാസ്സ് കൊടുക്കാതിരിക്കാൻ വേണ്ടീട്ട് കാവലായിട്ട് ഒരു പോലീസുകാരനായിട്ട് അഭിനയിക്കുന്നൊരു കുട്ടിയേങ്കൂടി അവിടാക്കിയതിന് ശേഷം മറ്റ് കള്ളമ്മാരെ പിടിക്കാൻ വേണ്ടി പോകുന്ന മനോഹരമായ ഒരു കളി തന്നെയായിരുന്നു കള്ളനും പോലീസുംന്ന് പറയുന്നത് ഇപ്പോഴുവെനിക്കതിനേക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരുപാടൊരുപാട് നൊസ്റ്റാൾജിയാണ് ഓർമ്മ വരുന്നത് അതു പോലെ തന്നെ പെൺകുട്ടികളെ സമ്പന്ധിച്ചിടത്തോളം കഞ്ഞീം കറിയും കഞ്ഞീങ്കറിയും നമ്മളീ ഗ്രാമത്തിൽ ഒരു വലിയൊരു പാറ ഉണ്ടായിരുന്നു ആ പാടത്തിൽ ഒരു സൈഡ് ആൺകുട്ടികൾ കള്ളനും പോലീസും മറ്റൊരു സൈഡിൽ പെൺകുട്ടികളെല്ലാങ്കൂടെച്ചേർന്ന് കഞ്ഞീങ്കറിയും കളിക്കുവായിരുന്നു ചെറിയ ചെറിയ മൺചട്ടികൾക്ക് വീട്ടീന്നാരും കാണാതെടുത്തോണ്ട് വന്നിട്ട് ചെറിയ മൂർച്ചയില്ലത്ത കറിക്കത്തിയക്കെ അടുക്കളേലുണ്ടെങ്കിൽ അതെല്ലാം പെറുക്കി എടുത്തോണ്ടൊരു ശനിയാഴ്ച രാവിലെ ഒരു ചെറിയൊരു വീട് പോലൊരു നാല് കമ്പ് കുഴിച്ച് വെച്ച് അതിന്റെ മുകളിൽ ഒരു ഷീറ്റക്കൊന്ന് ജെസ്റ്റൊന്ന് വിട് വിരിച്ച് ഒരു വീട് പോലൊരു ഇങ്ങനൊരു മാടങ്കണക്കൊണ്ടാക്കി അതിനകത്ത് ഇരുന്ന് ചെറിയ ചെറിയ ഇലകളും അതുപോലെ തന്നെ ചേമ്പിൻ്റെ തണ്ടും വാഴയുടെ തണ്ടക്കെ അരിഞ്ഞ് ഒരു ചിരട്ടക്കകത്ത് തട്ടിയിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും മഞ്ഞപ്പൊടീടിന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊന്നും കിട്ടത്തില്ലായിരുന്ന്ട്ട ഈ മുളകുപൊടീന്നെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചുട് കട്ടയാണ് ചുട് കട്ട പൊടിച്ച പൊടിയാണ് മുളക് പൊടി അതുപോലെ നല്ല പൊടി മണ്ണുണ്ട് അതാണ് മല്ലിപ്പൊടി അതൊക്കെ ഇട്ട് കൊണ്ട് അതൊക്കെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഈ ഒരൂ കളിച്ചോറമ്മൾ കഴിച്ചിട്ട് മാത്രമേടു വീട്ടിൽ കഴിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ അങ്ങ് അഭിനയിക്കുക കഴിക്കുന്നതായിട്ട് അഭിനയിക്കുക അത് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളെന്ത് ചെയ്തൊള്ളു വീട്ടിപ്പോയി താളത്തിൽ ഭക്ഷണം കഴിക്കാറുള്ളു വളരെ വല്ലാത്തൊരു ഗൃഹാതൊരത്വം അതുപോലെ വളരെ നൊസ്റ്റാൾജിയ ഫീല് ചെയ്യുന്ന ഒരു സംഭവങ്ങളന്നെയാണ് ഇപ്പോൾ നമ്മൾ അതിനേക്കുറിച്ചക്കെ ആലോചിക്കുമ്പോൾ ഇപ്പോഴത്തെ കുട്ടികളെ സംബന്ധിച്ചെടുത്തോളം അതിനൊക്കെ തിരി തികച്ചും ഒ അവരെക്കെ സംബന്ധിച്ചെടത്തോളം ഇനി ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളാണ് അവരെല്ലാം ഇപ്പോൾ ഇലക്ട്രോണിക് യുഗത്തിലാണ് ഫോണും ടാബ്ലെറ്റും കമ്പ്യൂട്ടർനേക്കെ മുന്നിലുള്ള കമ്പ്യൂട്ടർ ഗേൾസ്സും കമ്പ്യൂട്ടർ ബോയ്സുമായി മാറിയിരിക്കയാണ് നമ്മളെയൊക്കെ സംബന്ധിച്ചെടുത്തോളം അവർ ചെയ്യുന്നത് അവരോട് അവരോട് തന്നെ കാണിക്കുന്ന വലിയൊരു ക്രൂരത തന്നെയാണ് കുറച്ചൂടെ കഴിയുമ്പം മാത്രമേ അവർക്കതിൻ്റെ ബുദ്ധിമുട്ടും കാര്യം കാര്യങ്ങളക്കെ മനസ്സിലാവത്തുള്ളു പക്ഷേ ഇപ്പോഴും നമ്മൾ പഴയ ഊർജസ്വലതയോട് കൂടിയും അതുപോലെ തന്നെ എന്തും ചെയ്യാൻ വേണ്ടി നമുക്ക് കെൽപ്പുണ്ട് എന്നുള്ള ആത്മവിശ്വാസത്തൂടിയും നടക്കുന്നതാണ് എല്ലാത്തിനെയും കാരണം നമ്മൾ കുട്ടിക്കാലത്ത് കളിച്ച് കളികൾ തന്നെയാണ് എന്നുള്ള കാര്യമാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്